ഹലോ ഡോക്ടർ ഞാൻ മാനത്തവാടീന്നാണ് വിളിക്കുന്നത് എനിക്ക് രണ്ട് ദിവസമായിട്ട് പനിയും തലവേദനയും ആ ആ രണ്ട് ദിവസമായി തുടങ്ങീട്ട് പാരസെറ്റമോളൊക്കെ കഴിച്ചായിരുന്നു അപ്പോൾ അത് ഞങ്ങളിങ്ങനെ വീട്ടിൽ പിന്നെല്ലാവരും പ പനിയൊക്കെ വരുമ്പോൾ കുടിക്കലുണ്ട് അപ്പോൾ അങ്ങനെ കുടിച്ചതാണ് അപ്പോൾ കുറച്ച് വിറവുണ്ടായിരുന്നു ആദ്യമൊക്കെ പോകാൻ നേരം കുടിക്കുമ്പോൾ പിന്നെ ചുമയും എല്ലാം കൂടെ കൂടി അപ്പോൾ ഒന്നൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഓക്കെ ഓക്കെ ഓക്കെ വീട്ടിൽ ഹസ്ബെൻന്റിന് ഉണ്ടായിരുന്നു അപ്പം അത് കുറഞ്ഞു ഇല്ല വേറാർക്കുമില്ല

മഴച്ചാറ് ചെറുതായിട്ട് കൊണ്ടായിരുന്നു ഇല്ല എവിടേം പോയില്ലാ വീട്ടിന്ന് തന്നെയായിരുന്നു വീട്ടിന്നിങ്ങനെ പുറത്ത് തുണിയൊക്കെ അഴയിൽ ഇടാൻ പോയപ്പോൾ മഴ കൊണ്ടു

വേറെ ചുമയുണ്ടായിരുന്നു നല്ലോണം പിന്നെ ജലദോഷം മൂക്കടപ്പ് പിന്നെ തൊണ്ട വേദനയുണ്ടായിരുന്നു പിന്നെ ഒരു സൈഡായിട്ട് ഭയങ്കര തലവേദനയായിരുന്നു ഒരു സൈഡിൽ തലേൻ്റെ ഒരു സൈഡിൽ മാത്രമായിട്ട് തല വേദനയായിരുന്നു വലത് സൈഡ് അറ്റത്തായിട്ട് തലവേദനയുണ്ടായിരുന്നു നല്ലോണം മേൽ വേദന പനി ഇടക്കിടക്ക് വിട്ട് അതായത് ഇടവിട്ട് ഇടവിട്ടുള്ള പനിയായിരുന്നു

രാത്രി രാത്രി ഇടക്ക് എ പ കൂടുതലും പകലാണ് ഇടവിട്ട് ഇടവിട്ട് പനി എങ്ങനെ ചുമയുണ്ട് ചുമയുണ്ട് പനി അങ്ങനെയില്ല രാവിലെ രാവിലെ എണീക്കുമ്പോളാണ് രണ്ട് ദിവസമായി തുടങ്ങീട്ട്

ഇനി കാണിക്കാനെങ്ങാനും വരണോ ഓക്കെ ഓക്കെ ഒക്കെ ഡോക്ടർ